ഹലോ ക്യാബ് എത്ര മണിയാകുമ്പോളാണ് എത്തുക ആ ഓക്കേ ആ ആ ആ ഓക്കേ എനിക്ക് ബത്തേരിയിലേക്കായിരുന്നു പോകേണ്ടതാണ് അവിടെ റോഡ് നിർമാണം ആയത് കൊണ്ട് എനിക്ക് വേറെ റൂട്ടിലൂടെ ആയിരുന്നു പോവേണ്ടതെന്ന് ഈ ഇതില് എത്ര സമയമെടുക്കും അവിടെ എത്താൻ എന്നറിയോ ആ ഓക്കേ ആ ഈ ഈ റൂട്ട് റൂട്ടിൽ തന്നെയാ അവിടെ എത്ര സമയാവുമ്പോൾ എത്താന് ആ ശരി ശരി ഓക്കേ